ഹലോ ഹലോ അതേ അതെ അതുലിൻ്റെ അമ്മയാണ് പറയൂ

അതുൽ പഠിക്കുന്ന സ്കൂളത്തെ അതുൽ പടിക്കുന്ന ആ ടീച്ചറേ പറയൂ എന്താ വിളിച്ചത് ടീച്ചറെ അതുലിപ്പം വീട്ടിലില്ല പുറത്ത് പോയിരിക്കുവാണെ ഫ്രണ്ട്സുകൾ വിളിക്കാൻ വന്നപ്പളെ അവർടെ കൂടെ പോയതാണ് എന്താ മിസ്സേ എന്തേലും പ്രശ്നമുണ്ടോ ഇല്ല ടീച്ചറേ വീട്ടിലങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ അവനെ അക്കാദമിക്ക് കാര്യങ്ങളൊക്കെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഫുള്ളായിട്ട് ബാക്കിലാണോ ടീച്ചറേ ഞാനെത്ര തവണ ഞാനെത്ര തവണ അവനോട് യൂണിഫോമിൻ്റെ കാര്യത്തിലായാലും വർക്ക് ചെയണ കാര്യത്തിലും ഹോം വർക്ക് ചെയ്യുന്ന കാര്യത്തിലും ചെറിയ മക്കളെ പഠിപ്പിക്കണ പോലെ ഞാനവൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് പക്ഷേ അവന് ഞാൻ പറയണതൊട്ടും അനുസരിക്കുന്നില്ല എന്താ തീരെ ഒരു ഇതില്ലാത്തത് പോലെയാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞതാണ് അല്ല ഞാൻ പല തവണ അവനോട് വാണിങ്ങ് ചെയ്തതാണ് യൂണിഫോമിടാതെ പോവരുത് സ്കൂൾൻ്റെ റൂള് പാലിക്കണോന്നൊക്കെ ഞാൻ പല തവണ പറഞ്ഞതാണ് പക്ഷേ അതിന് കുറച്ച് ഇവനെക്കാളും പ്രായം കൂടിയ കുറച്ച് കുട്ടികളായിട്ടാണ് ഇവന് കമ്പനി അധികം എനിക്ക് തോന്നണുണ്ട് ചിലപ്പോൾ അതുകൊണ്ടാവാം അവന് നമ്മൾ വലിയ ആളുകൾ പറയുമ്പോൾ അവർ അവനത് അനുസരിക്കാതെ വരുന്നത് ചിലപ്പം അതുകൊണ്ടാവാം അത് തന്നെയാണ് എൻ്റവസ്ഥയും ഞാനെത്രയോ തവണ അവനോട് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവന് ഒരു കണക്കിനത് സമ്മതിക്കുന്നില്ല കുട്ടീടെ അച്ഛൻ ഇവടെ തന്നെയില്ല അച്ഛൻ പുറത്താണ് അല്ല പിന്നവനീ ഒറ്റമകനാണ് ഒറ്റമകനാണ് അപ്പോൾ അവന് അല്പം ഓമനിച്ച് ലാളിച്ചത് കൊണ്ടുള്ള പ്രശ്നാണോന്നറിയില്ല ആ ഞങ്ങളെ ആ അറീച്ചോ ഞങ്ങളെ വേണമെന്നുണ്ടെങ്കിലെ കൗൺസിലിംഗ് എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുവാണ് ഓക്കെ ഓക്കെ ആ ടീച്ചറേ ഞാൻ പറയാട്ടോ ശരി